ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് കളികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് നഷ്ടമായതും ഇത് തന്നെയാണ് ശാ ശാരീരികമായി നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധവായുവും സൂര്യപ്രകാശത്തിനും നമ്മൾ നേരിട്ട് അനുഭവിക്കുകയാണ് നമ്മൾ പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കാർഡിയോ വാസ്കുലാ ഹെൽത്ത് അതായത് നമ്മുടെ ഹൃദയ സംബന്ധമായ ആരോഗ്യം കാർഡിയോ അതിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് പ്രഷറും ബി പിയും ഡയബെറ്റീസൊക്കെ കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ നമുക്ക് പ്രചോദനമായി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ നമുക്കറിയാലോ സൂര്യപ്രകാശത്തിലാണ് വൈറ്റമിൻ ഡി അധികമായി ഉൾക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പുറത്തിറങ്ങി കളിക്കുമ്പോൾ നമുക്കത് കൂടുതലായി ലഭിക്കാൻ സഹായിക്കുന്നു മാനസികമായ ക്ഷേമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും കണ്ട്രോള് ചെയ്യാനും കുറയ്ക്കാനും നമുക്ക് സഹായകരമായി മാറിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ മൂഡിനെയും മെൻ്റൽ ഹെൽത്തിനെയും വളരെയധികം ഔട്ട്ഡോർ ഗെയിംസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബെറ്റർ സ്ലീപ് കോളിറ്റി അതായത് നല്ലതായിട്ടുള്ള ഉറക്കം നമ്മൾ പുറത്തുപോയി കളിക്കുമ്പോൾ നമ്മൾ നന്നായി വിയർക്കുന്നു അത് നമ്മുടെ ആരോഗ്യകരമായ ഒരു ഉറക്കത്തിന് അടിത്തറ പാവുകയാണ് ഇത്രയുമാണ് നമുക്ക് കളികളിൽ നിന്നും ശാരീരികവും മാനസികവുമായ ക്ഷേമങ്ങൾ ഉണ്ടാകുന്നത്